എനിക്ക് ഒരിക്കൽ ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഒരു കോള് എടുക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അന്ന് അവർ എന്നോട് സീ വീ വി നമ്പറാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് അത് ഷെയറ് ചെയ്ത് കൊടുത്തു അന്ന് എൻ്റെ ആ ഒരു അറിവില്ലായ്മ കൊണ്ട് ഞാൻ അത് ചെയ്ത് പോയതാണ് അതിന് ശേഷം എൻ്റെ അക്കൗണ്ടിൽ നിന്നും എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരേ നമ്പർ വച്ച് കണക്റ്റടായിട്ട് അങ്ങനെ കുറേ പൈസകൾ പോയിട്ടൂണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുക അവിടെ നിന്ന് മോൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുക അവിടെ നിന്ന് തിരിച്ച് അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുക അങ്ങനെ വന്നിട്ട് പക്ഷെ ബാലൻസ്സ് വരുമ്പം നിൽ ബാലൻസ് ആയിരിക്കും അങ്ങനെ വന്ന് ഒരൗ ലക്ഷം രൂപയുടെ അടുത്ത് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ ബാങ്ക് പോയിട്ട് അന്വേഷിക്കുമ്പം ഒരു ട്രാൻസാക്ഷനും ഉണ്ടാവില്ല കാണിക്കണത് ഇങ്ങനെ ആയിരിക്കും ഒരു അക്കൗണ്ട് നിന്ന് വേറെ ഒരു അക്കൗണ്ടിലേക്ക് അങ്ങനെ ഒരു സർക്കിൾ മാതിരി ഒരു ട്രാൻസാക്ഷനാണ് കാണിക്കുക പക്ഷെ മൂന്ന് അക്കൗണ്ടിലും പൈസ ഇല്ലാത്ത ഒരു അവസ്ഥ അങ്ങനെ വന്ന് ഞങ്ങൾ അത് ഒരു പ്രാവശ്യം അത് ബ്ലോക്ക് ചെയ്തു നമ്പറ് ബ്ലോക്ക് ചെയ്തിട്ടും അത് മാറിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട് ക്ലോസ്സ് ചെയ്തു എക്കൗണ്ട് ക്ലോസ്സ് ചെയ്തിട്ടും അത് ഇനാക്ടീവ് ആയിട്ട് നിന്നതേ ഉണ്ടായിരുന്നുള്ളു ക്ലോസ്സ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും നമുക്ക് ഫോൺ നമ്പറ് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് കാരണം ഈ തട്ടിപ്പ് പിന്നേയും തുടർന്ന് കൊണ്ടേ ഇരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾക്ക് അച്ഛൻ്റെ എക്കൗണ്ട് ക്ലോസ്സ് ചെയ്യാൻ പറ്റിയതും അതിന് ശേഷം ഫോൺ നമ്പറ് നമുക്ക് ക്യാൻസല് ചെയ്യാൻ പറ്റിയതും അതിന് ശേഷമാണ് ഈ ട്രാൻസാക്ഷൻ്റെ ഇതൊക്കെ നിന്നത് അത് വരെ ഈ പൈസ എങ്ങോട്ട് പോണൂ എന്നള്ളത് ബാങ്കുകാർക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവർ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം കണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വച്ചാൽ നമ്മൾ എന്ത് പർച്ചേസ്സ് ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും സേഫ് ആയിട്ടുള്ള സൈറ്റ് മാത്രം യൂസ് ചെയ്യുക പിന്നെ പബ്ലിക് പ്ലേസിൽ ഉള്ള വൈഫൈ കഴിയുന്നതും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ നെറ്റിലെ നമ്മുടെ ഫോണിലെ ഡാറ്റ ഉണ്ടാവുമല്ലൊ അത് മാത്രം യൂസ് ചെയ്യുക പുറത്താണെങ്കിൽ പബ്ലിക് വൈഫൈ എന്ന് പറഞ്ഞത് ആർക്ക് വേണമെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ കഴിയുന്നതും ജീപ്പേ ഫോൺപേ ആ സംവിധാനങ്ങളും കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ബാങ്കിൽ നിന്ന് കിട്ടിയ വലിയ ഒരു ഉപദേശമാണ് എനിക്ക് അത് കാരണം അതിലെ ഒരു ഐ ഡി ഉണ്ട് നമ്മടെ അത് വേറെ ആർക്കെങ്കിലും എങ്ങനെ എങ്കിലും കിട്ടിയാലും നമ്മുടെ അക്കൗണ്ട് നിണ്ണ് പൈസ അവർക്ക് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അത് നമുക്ക് അറിയുക പോലുമില്ല ഒരു ട്രാൻസാക്ഷൻ വന്നു എന്നുള്ളത് അല്ലാതെ വേറെ നമുക്ക് അതിനെ പറ്റി യാതൊരു ഡീറ്റൈൽസ്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കഴിയുന്നതും ജീപ്പേയും ഫോൺപേയും ഒക്കെ ഒഴിവാക്കുകയാണ് നല്ലത് പിന്നെ ആർക്കും ഏടിഎമ്മിൻ്റെ പിൻ നമ്പറോ നമ്മൾക്ക് വരുന്ന എന്തെങ്കിലും ഓടീപ്പീ നമ്പേഴ്സോ ഏടിഎമ്മിൽ തന്നെ ഉള്ള ഏട്ടീഎം കാർഡിലുളള സീവീവി നമ്പറ് ഇതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും കൂട്തൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം